ഞാൻ കാനഡ രാജ്യത്തിലേക്ക് പോകുവാനാണ് ആഗ്രഹിക്കുന്നത് കാനഡ ഇന്നു നമുക്കു ജീവിക്കുവാനും പണം സമ്പാദിക്കുവാനും നല്ലൊരു രാജ്യമാണ് അവിടുത്തെ ശാന്ത സുന്ദരമായ അന്തരീക്ഷം നമുക്ക് താമസിക്കുവാനും തൊഴിൽ സാധ്യതകൾ കൂടുതലാണ് പിന്നെ അവിടുത്തെ രൂപ ഡോളറായ കാരണത്താൽ നമ്മളാ ഡോളർ ഇന്ത്യേലേക്കു കൊണ്ടു വന്നാൽ രൂപയുടെ മൂല്യം വർദ്ധിക്കും നമുക്ക് അവിടുത്തെ ഡോളറിൽ നിന്ന് ഇന്നത്തെ കണക്കു പ്രകാരം ഏതാണ്ട് നൂറു രൂപയുടെ അടുത്തുണ്ട് അതിനാൽ നമുക്ക് അവിടുത്തെ പത്തു ഡോളർ കിട്ടിയാൽപ്പോലും ഇവിടെ നമുക്കത് ആയിരത്തിനടുത്തേക്ക് മാറ്റാൻ കഴിയുന്നു തന്നെയല്ല അവിടെ ഉയർന്ന ജോലിക്ക് ഉയർന്ന കൂലിയും വിദ്യാഭ്യാസം ഉള്ളവർക്ക് നല്ല ജോലിയും വാഗ്ദാനം ചെയ്യുന്നു അതിനാൽ നമുക്ക് നമ്മുടെ ജീവിതച്ചിലവുമായി ഏറ്റ് കൂട്ടി യോജിക്കുമ്പോൾ വളരെയധികം ചിലവുണ്ടെങ്കിൽപ്പോലും നമുക്ക് കയ്യിൽ സമ്പാദ്യം ഉണ്ടായിരിക്കും അതിനാൽ ഞാൻ കാനഡയാണ് തിരഞ്ഞെടുക്കുന്നത് കാനഡയിലേക്ക് പോകണമെങ്കിൽ പഴയ മാതിരി വിസ പാസ്പോർട്ട് അതിൻ്റെയൊന്നും തടസങ്ങളില്ല നമുക്ക് വിദേശ സർക്കാരിലേക്കു പോകാൻ ഇന്ത്യൻ എമ്പസി തന്നെ ഏർപ്പാടു ചെയ്തു തരുന്നുണ്ട് നമുക്കധികം തടസ്സങ്ങളൊന്നും ഇല്ലാണ്ടെ പോകാൻ കഴിയുന്നൊരവസ്ഥയാണ് നമുക്കിന്നുള്ളത്